ഹലോ മൈ ജി മൊബൈൽ ഷോപ്പല്ലേ ആ ഗുഡ് മോണിങ് ഞാൻ അവിടത്തെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ലേറ്റെസ്റ്റ് മോഡൽ ആൻഡ്രോയിഡ് ആയിരുന്നു വേണ്ടത് അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ആ ഷോപ്പിൽ അവയിലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പറയാമോ ആ എനിക്കങ്ങനെ ബ്രാൻഡ് ഒന്നുമില്ല ലേറ്റസ്റ്റ് മോഡല് ആയിരിക്കണം പിന്നെ എന്താണ് നമ്മുടെ നല്ല എന്താണ് ഇമേജ് ക്ലാരിറ്റി വേണം ക്യാമറ ക്ലാരിറ്റി നന്നായിട്ട് ഉണ്ടായിരിക്കണം പിന്നെ സ്റ്റോറേജ് എനിക്കൊരു വൺ ട്വൻ്റെി ജി ബി വേണം അത്രയേ ഉള്ളു എനിക്ക് നിർബന്ധം ക്യാമറ അടിപൊളി ആയിരിക്കണം ആ ഓക്കെ ഈ സാംസംഗ് ഫോൺ റേഡിയേഷൻ കുറവാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ഇപ്പം മറ്റേ ഫോൺ പറഞ്ഞത് അതിൻ്റെ എങ്ങനെയാണ് ആണോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരാൻ രണ്ടിൻ്റെയും ഒന്നേ കാൽ ലക്ഷം ഓ പറ്റില്ല പറ്റില്ല പറ്റില്ല എനിക്ക് ഒരു തെർട്ടീ തൌസൻഡ് അതിന് മാക്സിമം പോകനായിട്ട് പറ്റില്ല തെർട്ടി തൌസൻഡിനുള്ളിൽ നല്ല ഐ ഫോൺ പോലത്തെ ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ വേണം നമുക്ക് നാൽപ്പത് ഡിസ്കൌണ്ട് ഒന്നുമില്ല നിങ്ങളുടെ ഷോപ്പിന് അപ്പോൾ എത്ര ഓഫർ കിട്ടും നമുക്ക് ഇവിടെ ഡിസ്കൌണ്ട് വളരെ കുറവാണല്ലോ ഞാനപ്പുറത്തെ ഷോപ്പിൽ ചോദിച്ചപ്പോ അവരെനിക്ക് ഫിഫ്റ്റി പേർസെൻ്റെ് ഡിസ്കൌണ്ട് തരാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഇവിടുന്നാ സ്ഥിരം മേടിച്ചോണ്ടിരുന്നതാ അതോണ്ടാണ് ഞാൻ ഇവിടെ വിളിച്ച് അന്വേഷിച്ചത് ഓ എന്താണ് കുപ്പി ഗ്ലാസ്സോ ഓഹോ ആ പക്ഷേ ആ ഗിഫ്റ്റിൻ്റെ ഒപ്പം ആ ഫൈവ് തൌസൻഡ് റുപീസ് നമ്മുടെ ഈ തെർട്ടി സിക്സിന്ന് കുറയ്ക്കാവോ എനിക്ക് ഗിഫ്റ്റ് വേണ്ട അങ്ങനെ ആ ആ ഓക്കെ അപ്പോൾ ഈ ഇ എം ഐയുടെ എങ്ങനെയാണ് എച്ച് ഡി എഫ് സി ആണ് ഞാൻ പ്രിഫറ് ചെയ്യാറ് പിന്നെ നിങ്ങളുടെ കമ്പനി അവർക്ക് ഉണ്ടോ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണേൽ ഞാൻ ഇന്ന് വരട്ടെ ഒരു അര മണിക്കൂറ് ഓക്കെ ഓക്കെ താങ്ക് യൂ സോ മച്ച് ശരി എന്നാൽ